താങ്കൾക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നോർത്ത് ഇൻഡ്യൻ ചൈനീസ് ഇൻഡ്യൻ പിന്നെ കേരളാ ഫുഡുകള് പിന്നെ പുതിയ പുതിയ ഫുഡൈറ്റംസ്കള് ഇന്നത്തെ ലോകത്ത് വന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ അകത്ത് കൂടുതല് ഫുഡുകള് ചൈനീസ് ഐറ്റംസുകളൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കേരളാ ഫുഡുകൾ കപ്പ അങ്ങനെ ഉള്ള ഫുഡുകൾ പഴയ കഞ്ഞി പിന്നെ കുഴിമന്തി തന്തൂരി ചൈനീസായാൽ നൂഡിൽസ് അങ്ങനെ ഒക്കെ ഒരുപാട് ഫുഡുകള് നമ്മുടെ ഇന്നത്തെ കാലത്ത് അട്ട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ആ ഒരു ഫുഡ് നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കിട്ടുമ്പം അങ്ങനത്തെ കഴിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ട് നമുക്കുണ്ടാകുന്നത് അപ്പോഴത്തേക്കും നമ്മള് പിന്നേയും പിന്നേയും നമ്മൾ ആ ഫുഡിനെ കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അറേബ്യൻ ഫുഡുകള് ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിലെ ഫുഡുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടില് സുഭലമായിട്ട് കിട്ടാറുണ്ട് അപ്പം അവിടുത്തെ ഷെഫ്മാര് പിന്നെ ഇവിടുത്തെ ഷെഫ്മാരൊക്കെ അവർ ഉണ്ടാക്കിയും ഇന്ന് സുഭലമാക്കിയും വിപണിയിൽ ഒരുപാട് ഫുഡുകളിറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട്